ഹലോ ആ ആ അതെ ബ്രേക്ഫാസ്റ്റിൽ മസാല ദോശയുണ്ട് ഇഡ്ലിയുണ്ട് പൂരി ഭാജിയുണ്ട് ഇങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ ഓക്കു അതെ ഓ അതെയാ ആ ആ ആ ഒരു പ്ലേറ്റിന് ഹൺഡ്രഡ് റുപ്പീസ് നൂറുപ്പ്യ വേറെ ഇഡ്ലിയുണ്ട് പൂരി ഭാജിയുണ്ട് പിന്നെ ബൺസുണ്ട് ആ പിന്നെ നെയ്റോസ്റ്റുണ്ട് ആ എന്താ മനസിലാകുന്നില്ല ആ ഇഡ്ലിക്ക് ഒരു പ്ലേറ്റിന് എൺപത് രൂപ

കോംബോ ഇഡലി സാമ്പാറുണ്ട് ഇഡലി ചട്ട്നിയുണ്ട് നിങ്ങൾക്കെന്ത് വേണമെങ്കിലും അത് തരാം ആ ആ മസാല ദോശക്ക് ആ ഒരു ഇരുപത് രൂപ ഡിസ്കൗണ്ടാക്കാം എൺപത് രൂപാക്കി തരാം ആ ഡെലിവെറിയുണ്ട് എവിടെയാണിത് ചൗക്കിലാ ആ ഓക്കേ ഡെലിവെറിയുണ്ട് ഡെലിവറി ഫീസ് മുപ്പത് രൂപ ആ ഓക്കേ ഓക്കേ ആ പറഞ്ഞോളു ആ പൂരി ഭാജിയുണ്ട് ഓക്കേ പിന്നെ ആ ഒരു ഫോർട്ടി ഫൈവ് മിനുറ്റ്സെടുക്കും ഓക്കേ എന്നാൽ ഒന്ന് ഞാൻ പറയുന്ന് ഒരു ഇഡലിയും പിന്നെ ഒരു പൂരി ബാജിയും ഒരു മസാല ദോശയുവല്ലേ ആ ആ ഒരു ഡിസ്കൗണ്ട് ആക്കാം നിങ്ങൾക്ക് ഓക്കേ ആ പിന്നെന്തെങ്കിലും ഓക്കേ ആ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടരാം ഓക്കെ